ആ ഹലോ ആ ഇത് മറ്റേ ഡൊമിനോസ് പിസ്സാ ഹട്ടിലെ ഡെലിവറി ബോയ് അല്ലേ ആ ഞാൻ അര മണിക്കൂറ് മുമ്പ് ഒര് പിസ്സ ഓർഡറ് ചെയ്തായിരുന്നു എൻ്റെ പേര് അഖിൽ ന്നാണ് അ അഖിൽ സുഹൃത്തെ ഞാൻ ഒര് അര മണിക്കൂറ് മുമ്പെ ഓർഡറ് ചെയ്തതാണ് ഇപ്പം തന്നെ അര മണി മുക്കാൽ മണിക്കൂർ ലേറ്റാണ് ഇനിയും പത്ത് മിനിട്ടോ ആരാ പറഞ്ഞത് അര മണിക്കൂറ് യാത്ര ഉണ്ടെന്ന് ഇവിടുന്ന് ആലുവയിൽ നിന്ന് നിങ്ങളുടെ സെൻ്ററിലേക്ക് അത്ര യാത്ര ഉണ്ടോ ഇല്ല പത്ത് മിനിറ്റിൻ്റെ യാത്രയെ ഉള്ളു എടോ നിങ്ങളുടെ ആപ്പില് പത്ത് മിനിറ്റ് എന്നാണ് പറഞ്ഞത് അതായത് ഞാന് ഇപ്പോൾ വിശന്നിട്ടല്ലേ ഓർഡറ് ചെയ്യുന്നത് ഈ കുറെ നേരം ആയി ഞാൻ ഒന്നരയ്ക്ക് എങ്ങനെയാണ്ടു ഓർഡർ ചെയ്തതാണ് ഇപ്പോൾ രണ്ടേകാലായി ഇല്ല ഇല്ല ഇങ്ങോട്ടേക്ക് കോൾ ഒന്നും വന്നിട്ടില്ല കോള് വിളിച്ചിട്ട് ഉണ്ടെങ്കിൽ കിട്ടുമല്ലോ റിംഗ് എങ്കിലും അടിയ്ക്കണ്ടേ ഇവിടുന്ന് ഒരു കോളും വന്നിട്ട് ഇല്ല ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത് അല്ലെടോ അതായത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ അര മണിക്കൂറ് മുമ്പെ ഓർഡറ് ചെയ്ത് ഞാൻ വിചാരിച്ച് പത്ത് മിനിറ്റുകൊണ്ട് എത്തും നിങ്ങളുടെ ആപ്പിലും അങ്ങനെയാണ് കാണിച്ചത് കസ്റ്റമർ കെയറിൽ നിന്ന് കോളും വന്ന് പത്ത് മിനിറ്റ് കൊണ്ട് പിസ്സ ഡെലിവറി ആകുമെന്ന് കോള് വന്ന് ഏഹ് എന്നിട്ടും പിസ്സ ഇവിടെ എത്തിയിട്ടില്ല കസ്റ്റമർ കെയർ കോള് വരും അന്നേരം ഇല്ലല്ലോ പത്ത് മിനിട്ട് കൊണ്ട് ഡെലിവറി ആകുമെന്ന് പറഞ്ഞിട്ട് കോള് വന്നായിരുന്നു അതെ നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് അത് ആണ് ഞാൻ പറഞ്ഞ് വരുന്നത് അതായത് ഒരു മര്യാദ വേണ്ടേ അതായത് ഇപ്പം പത്ത് മിനിട്ട് ലേറ്റ് ആകുമെങ്കിൽ അര മണിക്കൂർ ലേറ്റ് ആകുമെങ്കിലും നിങ്ങൾക്ക് ഒന്ന് വിളിച്ച് പറയാമായിരുന്നു നിങ്ങള് വിളിച്ച് പറഞ്ഞിട്ട് ഇല്ല കോള് കണക്ട് ആകുന്നില്ലായെന്ന് ഒക്കെയാണ് പറയുന്നത് പിന്നെ ഇപ്പോൾ എങ്ങനെയാണ് കിട്ടിയത് ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ മാത്രം എങ്ങനെയാണ് കിട്ടിയത് എടോ അപ്പോൾ കുറെ ഡെലിവറി പോലെ എൻ്റെ ഡെലിവറിയും ഇമ്പോർട്ടൻറ്റ് അല്ലേ ഇത് റീഫണ്ടിൻ്റെ വിഷയം ഒന്നും അല്ല അതായത് ഇപ്പം നിങ്ങളെ വിശ്വസിച്ച് ഞാൻ ഓർഡറ് ചെയ്യുന്നത് ഇതിലും ഭേദം എനിക്ക് കടയിൽ പോയി കഴിച്ചാൽ പോരെ അതായത് ആപ്പില് ഞാൻ ഓർഡർ ചെയ്യണോ നിങ്ങള് കൃത്യ സമയത്ത് എത്തിക്കാന്നുള്ള നിങ്ങളുടെ ഒരു പോളിസി അല്ലേ അത് കൃത്യം ആയി പാലിക്കണ്ടേ ഓക്കെ ഇത് അതായത് ഇനി ഇപ്പോൾ രണ്ട് ഇപ്പോൾ സമയം രണ്ടേകാൽ ആയി ഞാൻ ഒരു രണ്ടര വരെ നോക്കും ഏഹ് അതിന് ഇടയ്ക്ക് എത്തിയിട്ടിലെങ്കിൽ ഞാൻ ഈ എനിക്ക് പിസ്സ വേണ്ട എൻ്റെ പൈസ പൈസ ഞാൻ തരികയും ഇല്ല ഒരു ആ ഒരു സാധനം ഓർഡറ് ചെയ്ത് അത് കൃത്യ സമയത്ത് തന്നെ കൊണ്ടുത്തരാൻ ഉള്ള മര്യാദ കാണിക്കണം കേട്ടോ ഇനി ഇങ്ങനെ ആവർത്തിക്കാൻ അതെ നിങ്ങളുടെ ഭാഗത്ത് ഉള്ള തെറ്റ് തന്നെ ആണ് അതുകൊണ്ട് ഇനി ഇങ്ങനെ ആവർത്തിക്കാൻ പാടില്ല രണ്ടര വരെ ഞാൻ നോക്കും ഓക്കെ ആ അപ്പോൾ ആ ടൈമിലേക്ക് കൊണ്ടു തരുമോ ഇനി എന്തെങ്കിലും ലേറ്റോ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കില് ഒന്ന് വിളിച്ച് പറയാൻ ഉള്ള മര്യാദ എങ്കിലും നിങ്ങള് കാണിക്കണം മനസ്സിലായില്ലേ ആ അപ്പോൾ ഓക്കെ രണ്ടരക്കുള്ളിൽ എത്തിക്കണം ശരി എന്നാൽ ഓക്കെ ബൈ ഓക്കെ